ആ അതെ ഇനി എപ്പോഴാണ് മീറ്റിങ് ഈ പ്രഗ്നൻസി ആയിട്ടുള്ള ഇവിടെ കുറച്ചു പേരുണ്ടായിരുന്നു ആ ആ ആ ആ എന്ന പിന്നെ ഒന്ന് ആലോചിക്കണേ ഇവിടെ കുറച്ചു പേരുണ്ട് അപ്പോൾ അവരേം കൂടി ഇതാക്കണം എൻ്റെ വീടിന്റെ അടുത്ത് അപ്പം അവരെയും കൂടിയൊന്ന് രണ്ട് മൂന്ന് പേരുണ്ട് ആ പിന്നെ കൗമാര കുട്ടിക്ക് ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ആ അന്ന് ചെയ്തായിരുന്നു

ആ ഒരു ഗ്രൂപ്പിണ്ടായിരുന്നില്ലെ ഇതിൽ ആ തീരുമാനിച്ച് ഞാൻ ആ സൂപ്പറെന്നെ

ആ എന്നാൽ ശരി പറഞ്ഞ് വിളിച്ചാൽ മതി അല്ല ചേച്ചി വിളിച്ചാൽ മതി ഉണ്ടാവുമ്പോൾ ആ ആണോ ആ എന്നാൽ ഞാൻ പറഞ്ഞോളാം ആ ആ എന്ന ഗ്രൂപിലേക്കൊന്ന് ഇട്ടാൽ മതി അപ്പം എന്തായാലും കുറേ പേർക്ക് മടിയൊക്കെയാണ് എന്നാലും കൊണ്ടു വരാൻ നോക്കാം ആ